ആ ഹലോ ആരാ അതെ അതെ പറഞ്ഞോളൂ ആ എവിടെയാ സ്ഥലം ആ എത്രയെണ്ണമാ എത്രയെണ്ണമാ വേണ്ടത് ദോശയും സാമ്പാറോ വേറെ എന്തെങ്കിലും കറികൾ വേണോ ഇവിടെ എല്ലാ കറികളും ഉണ്ട് ചിക്കൻ ബീഫ് വെജിറ്റബിൾസ് ഓക്കേ അഞ്ചു ദോശയാണോ വേണ്ടത് ഒരു ദോശയും ചിക്കൻ കറിയും നിങ്ങൾ വരുന്നാ വഴി വീടിൻറ്റേ സ്ഥലം ഒന്ന് പറയാമോ എവിടെയാണ് തിരിയേണ്ടത് എന്ന് ആ ജംഗ്ഷനിലെ ആശുപത്രിയുടെ അടുത്തോ ഇത് ഇപ്പം കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഒരു അല്പം ലേറ്റ് ആവും ഇല്ലാ ഇതിപ്പം നമ്മൾ ഇവിടെ ഫ്രഷ് ആയിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ ദോശ ചുട്ടു വയ്ക്കാറില്ല ഇവിടെ ഓർഡർ വരുന്നത് അനുസരിച്ച് മാത്രമേ നമ്മൾ പ്രിപയർ ചെയ്ത് ചൂടോടുകൂടി പാഴ്സല് ചെയ്ത് കൊടുക്കലാണ് പതിവ് അത് അത് ഉണ്ടാക്കി റെഡിയാക്കി വരണം രണ്ടു മിനിറ്റ് ആയില്ലാ രണ്ടു മിനിറ്റ് ആയില്ലാ അത് വരെ വെയ്റ്റ് ചെയ്യണോ രണ്ടു മിനിറ്റ് ആയി അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇതിന് ഡെലിവറി ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ ഇവിടുന്ന് സാധനം ഡെലിവറി ചാർജ് ഉണ്ട് പിന്നെ ഇപ്പം മഴ മഴ പെയ്യുന്നത് കൊണ്ട് ഇപ്പം നമ്മൾ ടൂവീലർലാണ് ഇത് കൊണ്ടുവരുന്നത് മഴ പെയ്യുന്നതുകൊണ്ട് ലേറ്റ് ആകും അത് ഏ അപ്പോൾ അവിടെ സ്ഥലത്ത് ആളു കാണുമല്ലോ അല്ലേ വാങ്ങാൻ ഓക്കേ ശരി എന്നാൽ